ഗ്രാമീണ പ്രദേശങ്ങളിൽ സാങ്കേതിക മേഖല ഇപ്പോഴും വളരെ നല്ല രീതിയിലാണ് പ്രശ്നങ്ങൾ നേരിടുന്നത് നമ്മുടെ സർക്കാർ അതിലേക്ക് വളരെ നല്ല രീതിയിൽ നോക്കണമെന്ന് എനിക്ക് തോന്നുന്നു അതിനുവേണ്ട അത്യാവശ്യമായ സപ്പോർട്ടുകൾ കിട്ടുന്നില്ല അത് അത് ഈ ഇത്ര ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്താലെ നമ്മുടെ നാട്ടിലുള്ള എം ആൾ ആൾക്കാരുടെ കുട്ടികളുടെ ആയാൽ പോലും അവരവരുടെ കഴിവുകൾ വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയുള്ളു ഇതേ പോലെത്തെ കാര്യങ്ങൾ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ട് വന്നാൽ മാത്രമേ അവരുടെ അവരവരുടെ കഴിവുകൾ വർദ്ധിച്ച് അത് നമ്മുടെ രാജ്യത്തിന് ഒട്ടാകെ സഹായിക്കാൻ നമ്മൾക്ക് പറ്റുകയുള്ളു അപ്പോൾ പ്രദേശങ്ങളിൽ ഈ സാങ്കേതിക മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ വെല്ലുവിളികളും നല്ല രീതിയിൽ സർക്കാറുകൾ ശ്രദ്ധിക്കണമെന്ന് തോന്നുന്നു